കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്നു പറയുന്നത് തലമുറകളായിട്ട് കൈ കൈമാറിവന്ന നിരവധി പാചക വിദ്യകളുള്ള ഒരു സംസ്കാര രീതിയാണ് കേരളത്തിനുള്ളത് പാചക രീതി എന്ന് പറഞ്ഞാല് പണ്ട് തൊട്ടേ ഔഷധങ്ങളെല്ലാം കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനം തന്നെയാണ് വിദ്യകളുടെ കാര്യത്തിലായാലും പാചക രീതിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പാചകം രീതി എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ രീതി പലപല രീതികളിലാണ് അപ്പോൾ നമ്മുടെ ഒക്കെ കാരണവന്മാര് എന്ന് പറഞ്ഞാല് പാചക രീതി പണ്ട് കാലത്ത് പാത്രങ്ങളൊന്നും ഇല്ലാണ്ട് അവര് ഭക്ഷണം പാകം ചെയ്ത് മുള കൊണ്ടുള്ള ഓരോ ഉപകരണങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി അതിൽ നിന്നായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് പക്ഷേ ഇന്ന് കാലം ഭയങ്കര മാറിയിട്ടുണ്ട് പാചക രീതി എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം സുലഭമാണെങ്കിലും ആ അത് പഠിക്കാൻ വേണ്ടി കുറെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇന്ന് നിലവിലുണ്ട് പക്ഷേ പണ്ടത്തെ തലമുറ ഉണ്ടാക്കുന്ന പാചക രീതിയും അത് അതിന്റെ ഒരു ഒപ്പം ഇന്നത്തെ ആ സാങ്കേതിക വിദ്യയിൽ നിന്ന് രൂപപ്പെടുന്ന പാചക വിദ്യ എത്തില്ല എന്ന് തീർത്തും പറയാൻ സാധിക്കും എന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് തലമുറകളായിട്ട് കൈമാറിവന്നൊരു പാചക രീതി ഇല്ല എന്നാണ് സത്യം പറഞ്ഞാല് കാരണം കാലത്തിനനുസരിച്ച് പാചക രീതികളോരോന്നും മാറിവരികയാണ് സോ അതിനനുസരിച്ച് നമ്മളും മറേണ്ടത് ആവശ്യമാണ് പണ്ടത്തെ ഒരു പാചക രീതി എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ സുലഭ സുലഭമായിട്ടാണ് കിട്ടുക എന്ന് കാലം മാറി അതിനനുസരിച്ച് ആൾക്കാരും മാറി പണ്ടത്തെ പാചക രീതിയല്ല ഇന്നുള്ളത് തീർത്തും വ്യത്യസ്തമാണ്